എൻ്റെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അപ്പം ഞങ്ങളുടെ ഇവിടെ മതപരമായി ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ വിഷു അതുപോലെ തന്നെ ഓണം ക്രിസ്മസ് ഈദ് ബക്രീദ് അങ്ങനെ ഉള്ള ദീപാവലി അതൊക്കെ ആഘോഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഹിന്ദു ആയത് കൊണ്ടും ഓണത്തിനും വിഷുവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് അത്പോലെ തന്നെ ക്രിസ്മസും നമുക്കിടയിൽ ആഘോഷിക്കാറുണ്ട് ഇല്ലാന്നില്ല ക്രിസ്മസിന് നമ്മൾ പള്ളിയിൽ പോവാറുണ്ട് അത്പോലെ തന്നെ അവരുടെ ഇതായിട്ട് ആചാരങ്ങളായിട്ട് നമ്മൾ കൂടി ചേർന്ന് അതും ആഘോഷിക്കാറുണ്ട് എല്ലാം അതുപോലെ തന്നെ ക്രിസ്മസ് വിഷു ആയാലും കണി ഒരുക്കുക ഓണത്തിനായാലും അങ്ങനെ ഉള്ളൊരു ഓണം ഓണസദ്യ ഒരുക്കുക ഓണത്തിന് പുടവ എടുക്കുക അതൊക്കെ വിഷുവിനായാലും വിഷു കോടി എടുക്കുക അതൊക്കെ ഞങ്ങൾക്കിടയിലെ വളരെ വലിയ ആഘോഷങ്ങൾ തന്നെ ആണ്